എന്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോഫ ആണ് അപ്പം അത്യാവശ്യം നല്ല അതായത് നമുക്ക് വല്യ കുഴപ്പം ഒന്നും തോന്നിയിട്ടില്ല അത്യാവശ്യം നല്ല സോഫയാണ് ഞാനിങ്ങനെ അതായത് ഇപ്പോൾ ഓണത്തിന്റെ ഓഫര് ആയിട്ട് പിന്നെ മേടിച്ചതാ സോഫ അപ്പം പിന്നെ അപ്പം ഓണ്ലൈനില് കണ്ടിട്ട് ഇന്സ്റ്റാഗ്രാം വഴിയാണ് ഓര്ഡര് ചെയ്തത് ഇപ്പം എല്ലാവര്ക്കും നല്ല റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കുറേ പേര് മേടിച്ചെന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം നോക്കുമ്പം മൂന്നുപേര്ക്ക് ഇരിക്കാന് പറ്റുന്നതാണ് മേടിച്ചത് അപ്പോൾ അതിനൊരു നാലായിരത്തി അഞ്ഞൂറ് ആണ് പറഞ്ഞത് പുറത്തൊക്കെ ഒരയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് ആറായിരം രൂപ ആ റേഞ്ച് വരും അങ്ങനെ ഞാന് ഓണ്ലൈനിൽ ഓര്ഡര് ചെയ്തതാ അപ്പം എന്ന് പറഞ്ഞാല് അത്യാവശ്യം നല്ല നമ്മൾ ഞാന് അത്ര പ്രതീക്ഷിച്ചിട്ടൊന്നും അല്ല മേടിച്ചത് നാലായിരത്തി അഞ്ഞൂറ് എന്ന് വച്ചാൽ അത്ര ക്വാളിറ്റി അല്ലേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ മേടിച്ചതാ പക്ഷെ കൊണ്ടു വന്നപ്പോൾ ഭയങ്കര അതായത് അത്രയ്ക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാം അതായത് മൂന്നു പേര്ക്കല്ല നമുക്ക് വേണേൽ നാലു പേര്ക്കും ഇരിക്കാം പിന്നെ എന്നു വച്ചാൽ നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയല് ആണ് നമുക്കിങ്ങനെ ചൂട് കാര്യങ്ങള് അതായത് നമ്മളിങ്ങനെ കുറേ നേരം ചാരിയിരിക്കുമ്പോൾ നമുക്ക് ചൂട് കാര്യങ്ങളൊന്നും വരില്ല അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണ് ഞാന് ഇത്രയും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ല പ്രൊഡക്റ്റ് ആയിരിക്കുമെന്ന് ഞാന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല നല്ല പ്രൊഡക്റ്റ് ആണ്